ഹലോ എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തില് നടത്തുന്ന ഒരു എംബ്രോയിഡറി കോഴ്സുണ്ടല്ലോ എംബ്രോയിഡറി സ്റ്റിച്ചിംഗ് ആന്ഡ് എംബ്രോയിഡറി കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അത് എവിടെയൊക്കെയാണ് നടത്തുന്നത് ആലപ്പുഴ ജില്ലയിലെവിടെയുണ്ട് അതിന്റെ ഫീസും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് സമയം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയില്സൊക്കെ ഒന്നറിഞ്ഞാല് കൊള്ളാമെന്നുണ്ട് അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ ഓഫിസുമായി ബന്ധപ്പെട്ടോ ഫോണില്ക്കൂടെ ഇന്ഫോര്മേഷന് തരുകയോ അത് നമുക്ക് നേരിട്ട് വന്ന് അറിയുകയാണോ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ ഒന്നറിയണം അതിന് എങ്ങനെയുള്ള കോഴ്സുകളാണ് അതിന് കോഴ്സ് കമ്പ്ലീറ്റാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് സര്ട്ടിഫിക്കറ്റ് തരുമോ സര്ട്ടിഫിക്കറ്റ് ഗവണ്മെന്റ് അപ്പ്രൂവ്ഡ് സ്ഥാപനമാണോ അതോ ഗവണ്മെന്റുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ലിങ്കേജുള്ള സ്ഥാപനമാണോ അതിന്റെ ഡീറ്റെയില്സൊക്കെ കൂടുതലായിട്ടൊന്ന് അറിയണമെന്ന് ഉണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാന് പറ്റും വെബ്സൈറ്റ് ഒന്ന് തരാമെങ്കിൽ അതിൽ കയറിയൊന്ന് നോക്കിയാല് നമ്മൾക്കറിയാന് പറ്റുമായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഒന്നറിയിച്ചെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരുന്നു ഇപ്പം വേറെയൊന്ന് രണ്ട് പേരുകൂടി ഇത് ഇതിനെക്കുറിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അപ്പം എന്നാ എന്ന് അന്വേഷിച്ചിട്ട് അവരോട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഇന്ഫോര്മേഷന്സൊക്കെ അത് ആ വിവരങ്ങൾ ഒന്ന് അയച്ച് തരികയാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നു അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു അതിന് വേണ്ടിയിട്ടൊന്നു ശ്രമിക്കുക